എനിക്കിഷ്ടപ്പെട്ട മഴക്കാലം നമ്മുടെ പ്രളയം ഒക്കെ ആയ മഴക്കാലം തന്നെയായിരുന്നു കാരണം സ്ക്കൂളിൽ പോവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ന്യൂസിൽ കാണുക ഇന്നവധിയാണ് പക്ഷേ എന്നാലും ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് കാരണം ഒരു ഒത്തൊരുമ വന്നത് നമ്മുടെ സ്ക്കൂളിലൊക്കെ ഇങ്ങനെ വീടുകളെല്ലാം വെള്ളം കേറി കൊളായവരുടെയും ഒക്കെ സ്ക്കൂളിലൊക്കെ വന്ന് ഇരുന്ന് എല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തൊരു കാലം പിന്നെ മഴ തീർന്ന സമയത്ത് ഉള്ള മീൻ പിടുത്തവും കാര്യങ്ങളുമൊക്കെ പിന്നെ അതുപോരാണ്ട് ഒരുപാടനുഭവങ്ങളുണ്ട് കാരണം പുറത്തേക്കിറങ്ങാൻ പറ്റില്ല മഴയും കാലാവസ്ഥയും വീട്ടിത്തന്നെ കടന്നുറങ്ങുക എണീക്കുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെത്തന്നെയായിരുന്നു സ്ക്കൂളിലും പോകണ്ട പഠിക്കുകയും വേണ്ട ഒരു സമയം അത് ഭയങ്കര ഇഷ്ടായിരുന്നു ആ പ്രളയം അങ്ങായപ്പം ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും കാര്യങ്ങളും ഓരോരുത്തരുടെ അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും എനിക്കിഷ്ടം ആ പ്രളയ സമയങ്ങളിലാണ്